ഹലോ ആ എന്താണ് ടീച്ചറേ ഞാൻ ജോലിയാണ് ആ തയ്യൽ തയ്യൽ ആ എന്താണ് വേണ്ടത് ഞാൻ തയ്യൽ പഠിപ്പിക്കുവാണ് പഠിപ്പിക്കുന്നുമുണ്ട് തയ്ച്ച് കൊടുക്കുന്നുമുണ്ട് ഓക്കെ എന്താണ് ടീച്ചർ ഉദ്ദേശിക്കുന്നത് ഫ്രോക്ക് പോലത്തെ വല്ലതും ആണോ അതോ എന്താണ് ഷർട്ടോ ഓക്കെ എത്ര കുട്ടിക്കളുണ്ട് അവിടെ അറുപത് കുഞ്ഞുങ്ങൾ ഓക്കെ എന്നത്തേക്ക് വേണ്ടിവരും അറുപത് പേർ ആയതുകൊണ്ട് ഏകദേശം എനിക്കൊരു ഒരു മാസത്തോളം വേണ്ടിവരും ഓക്കെ ഓക്കെ ഞാനൊരു ജൂൺ ജൂൺ ഒരു ടെൻത്തിനോടുകൂടി തരാം ഓക്കെ അത് ഞ റേറ്റ് ഓക്കെ ഞങ്ങൾക്ക് ആ റേറ്റ് ഇത്തിരി ഉണ്ട് ടീച്ചറേ കാരണം ഞ ഒരു ജോഡി ഒരു ഒരു ജോഡിക്കൊരു മുന്നൂറ്റമ്പത് രൂപ വരും ഒരു ജോഡിക്ക് മുന്നു മുന്നൂറ്റിയൻപത് രൂപ ഓക്കെ ആ മുന്നൂറ്റമ്പത് മൂന്ന് കൂട്ടം കൂടി വരുന്നതുകൊണ്ട് നാനൂറ് വേണ്ടിവരും കാരണം ഞാൻ തന്നെ അല്ല തയ്ക്കുന്നത് എൻറെ കൂടെ വേറെ ആൾക്കാരും കൂടെ തയ്ക്കുന്നുണ്ട് അപ്പം എനിക്ക് അല്ല ആ അവർക്ക് കൂടെ കൂലി കൊടുക്കേണ്ടതുകൊണ്ട് എനിക്ക് മുന്നൂറ്റമ്പത് പോര നാനൂറ് രൂപയെങ്കിലും ആകും കുറഞ്ഞതേ ആ ഓക്കെ അത് തന്നേക്കാം ഓക്കെ ഓക്കെ ഓക്കെ അത് കൂടെ തന്നോളാം ഓ ഓക്കെ ഞാൻ നോക്കട്ടെ പക്ഷേ ഞാൻ ഇവർക്ക് ഇങ്ങനെ കൂലി കൊടുക്കണമല്ലോ എൻ്റെ കൂടെ ഉള്ളവർക്കും കൂടെ കൂലി കൊടുക്കേണ്ടതുകൊണ്ട് എനിക്ക് അവരുടെ കാര്യം കൂടെ നോക്കണമല്ലോ അപ്പോൾ ഇപ്പം മൂന്ന് മൂന്നും ഒന്നും നാല് സാധനം അതിന് പകരമാണല്ലോ ഇത് തരുന്നത് നമ്മുടെ അതുകൊണ്ട് നോക്കാം കുറച്ച് നാൾ അത് ചെയ്യാൻ നോക്കാം എൻറെ അയ് ഞാൻ എൻ്റെ പേര് ജോളി എന്നാണേ ഞാൻ ഓക്കെ ഞാൻ തീർച്ചയായിട്ടും എനിക്കാ ഐറ്റംസ് ഇവിടെ എത്തിച്ചാൽ മതി തുണി ഇവിടെ എത്തിച്ചാൽ മതി ഞാൻ അത് അറേഞ്ച് ചെയ്തോളാം ഓക്കെ ഞാൻ അറേഞ്ച് ചെയ്തോളാം ഞങ്ങളുടെ സെൻറർ വരുന്നത് അഞ്ചൽ ഏരിയയിലാണ് അന്നേരം അപ്പം അങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ മതി അത് ഓക്കെ താങ്ക് യു തരണം എങ്കിലല്ലേ എനിക്കത് ജൂൺ ടെൻത്തിനോടുകൂടി നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റൂളളൂ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും താമസിക്കരുത് താമസിച്ചുകഴിഞ്ഞാൽ പാടായിരിക്കും ഡിലേ ആയിപ്പോവും അതുകൊണ്ട് എത്രയു പെട്ടെന്ന് വന്നാൽ എത്രയും പെട്ടെന്നതിന് ആക്ഷൻ ഉണ്ടാകും താങ്ക് യു താങ്ക് യു സോ മച്ച്